ആദ്യമൊക്കെ ഈ അന്ധരായരും ബധിരരായരും കുട്ടികൾകൊക്കെ പഠന പഠിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായ സാഹചര്യങ്ങൾ ആണുണ്ടായിരുന്നത് അവരെന്ന് വച്ചാല് ആദ്യമൊക്കെ ഇതിനൊരു ഇപ്പൊൾ അന്ധരാണെങ്കില് ബധിരരാണേൽ പഠിക്കണ്ട എന്നുള്ളൊരു എന്നുള്ള ചിന്തയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഈ കാലഘട്ടത്തിലൊക്കെ അവര് ഇപ്പം അവർക്കൊരു മുൻതൂക്കം നൽകുന്നുണ്ട് സ്കൂളുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർക്ക് കുറച്ച് മുൻതൂക്കം നൽകുന്നു എത്രയോ ആൾക്കാര് ഇപ്പൊൾ കണ്ണ് കാണാത്തവര് പാട്ട് പാട്ട് പാടുന്നുണ്ട് അതൊക്കെയാണ് അതൊക്കെ ഒരു ഉദാഹര ഉദാഹരണങ്ങൾ ആണല്ലോ അവരൊക്കെ ഇപ്പൊൾ ഇപ്പൊൾ എല്ലാ സ്കൂളിലും എല്ലാ സ്കൂളുകളിലും എന്നുവെച്ചാൽ ചില സ്ക്കൂളുകളിലൊക്കെ അങ്ങനെയുള്ള കുട്ടികൾ വരുന്നൊക്കെയുണ്ട് അവർക്ക് അതിൻ്റെതായ ഒരു ക്ളാസുകളും അല്ലെങ്കില് അതിന് അതിനനുസരിച്ചുള്ള ഒര് പഠനങ്ങളും ഒക്കെ അതിൻ്റെതായ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതായിട്ടും ഉണ്ട് ഈ കാലഘട്ടത്തില്